ഹലോ അതെല്ലോ പറഞ്ഞോളൂ ആ ഓക്കെ

ഓക്കെ

ഓക്കെ ഇപ്പം മാഡത്തിന് ആദ്യമേ നമുക്ക് നടുവേദനയുടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരൂ ടു വീക്സിൻ്റെ ഒരു കോഴ്സ് ആണുള്ളത് അതിൽ നമ്മൾ ഓയിൽ മസ്സാജും പിന്നെ കിഴി കുത്തുകയും സ്റ്റീം ബാത്തും ചെയ്യും ആ പിന്നെ നമ്മൾ പ്രത്യേകമായ എക്സസർസൈസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും ഇതിനായിട്ട് മാം ആദ്യമേ പേരും കാര്യങ്ങളൊക്കെ തന്ന് രജിസ്റ്റർ ചെയ്യണം അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ഫീസും പേ ചെയ്യേണ്ടി പേ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെയാണ് മകളുടെ കാര്യവും പ്രസവ ശുശ്രൂഷയും ഏകദേശം നമ്മൾ ഒരു ഒരു മാസത്തെ ശുശ്രൂഷയാണ് കൊടുക്കാറ് അതിനും നമ്മൾ സ്റ്റീം ബാത്തും പ്രത്യേകമായ ആഹാര രീതികളും എക്സർസൈസുകളും ഒക്കെ ചെയ്യാറുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കും കുഞ്ഞിനും അമ്മയ്ക്കും കുഞ്ഞിനെയും കുളിപ്പിക്കും അമ്മയ്ക്ക് മൂന്ന് നേരം കുളി കാണും പിന്നെ ചെറിയ ചെറിയ എക്സർസൈസുകൾ ആഹാരങ്ങൾ പ്രത്യേകമായ ആഹാരങ്ങളും കൊടുക്കും അതിൽ നമ്മൾ നോൺ വെജ് ആഹാരങ്ങളൊന്നും കൊടുക്കില്ല ഇത്രയൊക്കെയാണ് ചെയ്യാറ് അമ്മ മകൾക്കായാലും നമ്മൾ പ്രീ ബുക്കിങ്ങ് ചെയ്യണം അതുപോലെ തന്നെ അഡ്വാൻസും അടയ്ക്കണം ഡീറ്റെയിൽസും തന്ന് എൻറ്റർ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും മാമിന് നടുവേദനയ്ക്ക് നമ്മൾ ഏകദേശം ട്വൻറി ഫൈവ് തൗസൻഡ് ആയിരിക്കും അപ്പം നമ്മൾ പ്രീ ബുക്ക് ചെയ്യുമ്പം അഡ്വാൻസ് ആയിട്ട് ഒരു ടെൻ തൗസൻഡ് എങ്കിലും പേ ചെയ്യേണ്ടി വരും മകൾക്കാണെങ്കിൽ വൺ ടെൻ തൗസൻഡ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം ആ മകൾക്ക് ഒരു മന്ത് വൺ മന്ത് കോഴ്സ് ആണ് അപ്പോഴത്തേനും ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി തൗസൻഡ് വരെയും ഫീ ആവും നം ഇതിൽ നമ്മുടെ അക്കൊമഡേഷൻ ഫുഡ് എല്ലാം എല്ലാം ഫെസിലിറ്റീസും കൂടെ ട്രീറ്റ്മെൻറും കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഈ റേറ്റ് വരുന്നത് മകൾക്കായാലും ഫസ്റ്റ് ഒരു ട്വൽവ് തൗസൻഡ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് പ്രീ ബുക്കും ചെയ്യേണ്ടി വരും നമുക്ക് റൂംസ് അവൈലബിൾ ആണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ്ഡും കാര്യങ്ങളും അവൈലബിൾ ആണ് മകൾക്ക് ആണെങ്കിലും ഡയറ്റിങ്ങ് നമ്മൾ രാവിലെ രാവിലെ സിക്സ് എ എം തൊട്ട് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ചെറിയ എക്സർസൈസിനൊക്കെ ശേഷം ചെറിയ യു ചെറിയ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും ചായയും എന്തെങ്കിലും ബിസ്കറ്റും അത് കഴിഞ്ഞ് നമ്മൾ കുറുക്ക് കഞ്ഞി അതുപോലെ ഉള്ള ആഹാരങ്ങളായിരിക്കും കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞൊരു ഉച്ച കഴിയുമ്പോഴത്തേനും നമുക്കൊരു ഓയിൽ മസാജ് ഉണ്ടാവും ഓയിൽ മസ്സാജിന് ശേഷം നമ്മളൊരു ഒരു കുളി ഉണ്ടാവും അമ്മേനേയും കുഞ്ഞിനേയും കുളിപ്പിക്കുന്നതായിരിക്കും മാം എപ്പോഴായിരിക്കും അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ബുക്കിങ്ങ് ചെയ്യാമായിരുന്നു ആ അടുത്ത ആഴ്ച്ച ഏകദേശം ഒന്ന് ഡേറ്റ് പറയാൻ പറ്റുമോ എന്നാലേ നമുക്ക് ബുക്കിങ്ങ് ചെയ്യാൻ ഒക്കൂ ഹാ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് റൂംസ് അവൈലബിൾ ആണ് അപ്പോഴത്തേനും നമുക്ക് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പേര് പറയുമായിരുന്നെങ്കിൽ

ഓക്കെ ഓക്കെ പേര് വയ മാമിൻറെ വയസ്സ് ഓക്കെ ആ അയച്ചുതരാം അയച്ചുതരാം ഗൂഗിൾ പേ നമ്പറും നമ്മൾ ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ് പേയ്മെൻറ് ചെയ്തതിന് ശേഷം നമ്മളൊരു റെസീപ്റ്റും ഓൺലൈൻ ആയിട്ട് അയ അയച്ച് തരുന്നതാണ് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടോ എൻ ആ കുഞ്ഞിനെ നോക്കാൻ കുഞ്ഞിനേയും അമ്മേനേയും നോക്കാൻ പ്രത്യേകമായിട്ട് ആളുകളുണ്ട് ഓരോ ഓരോത്തരേം നമുക്ക് നോക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഉള്ള ആളുകൾ ആവൈലബിൾ ആണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യണം കുൻ കുട്ടിക്കാണെങ്കിലും കുട്ടിക്കാണെങ്കിൽ നമ്മൾ സമയാസമയം പാൽ കൊടുക്കാനായിട്ടാണെങ്കിലും അമ്മേനെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും നമ്മുടെ സ്റ്റാഫുകൾ ഉണ്ടാവും അമ്മേനെ ആയാലും ഒരു എക്സർസൈസ് ചെയ്യിക്കാനാണെങ്കിലും ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കാനായാലും നമുക്ക് പ്രത്യേകം പ്രത്യേകം സ്റ്റാഫുകൾ അവൈലബിൾ ആണ് എല്ലാത്തിനും ഓക്കെ താങ്ക് യു